ഇപ്പോൾ നൃത്ത വീഡിയോകള് ഡാൻസ് അതുപോലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയില് വയറലാകാൻ റീസണെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ്ങായിട്ട് പോയികൊണ്ടിരിക്കുന്നതാണ് ഈ ഡേൻസിൻ്റെ വിഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമില് അപ്പോൾ അത് എന്താണ് അപ്പോൾ ഇപ്പോൾ ഒരാള് കളിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് അവർക്കും എനർജി കിട്ടുന്നതോടൊപ്പം നമുക്കും എനർജി അതിൽ നിന്ന് കിട്ടും നമുക്കൊരു പ്ലെഷറ് കിട്ടും നമുക്കിപ്പം കുറച്ച് ഡാൻസ് അങ്ങനെ എനിക്കിപ്പം ഡാൻസിനോട് ഞാൻ ഡാൻസ് കളിക്കാറുണ്ട് എനിക്കതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ ഒരാളൊരു ഡാൻസിൻ്റെ വീഡിയോ കണ്ട് ഞാൻ എന്ത് യത് ഓട്ടോമെറ്റിക്കായിട്ട് എനിക്ക് ഡാൻസ് ഒന്ന് ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ എന്നെനിക്ക് തോന്നും അപ്പോൾ എനിക്ക് എന്തോ ഒര് ഒര് എനർജി കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇൻട്രസ്റ്റുള്ളതുകൊണ്ടും എനിക്ക് ഓട്ടമേറ്റിക്കായിട്ട് അങ്ങനത്തൊരു ഡാൻസിൻ്റെ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് ചെയ്യണമെന്നുള്ള ഓട്ടോമെറ്റിക്കായിട്ടെനിക്ക് തോന്നുകയു ചെയ്യും അപ്പോൾ ആ ഒരു എനർജി കിട്ടുന്നുണ്ടാണല്ലോ ഞാനത് പിന്നെ എന്താണ് കൂടുതൽ ഡാൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഈ ഇങ്ങനത്തെ എനർജി അങ്ങനൊക്കെ കിട്ടുന്നതുകൊണ്ടെന്നെ എൻറെർടെയിൻമെൻ്റ് എൻറെർടെയിൻമെൻ്റ് അങ്ങനത്തെ കിട്ടുന്ന ഉള്ള ഡാൻസുണ്ട് അപ്പം എന്താണ് കൂടുതൽ ലൈക്കും സബ്സ്ക്രൈബ്സും ഫോളോസ്സൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പം ആ സോഷ്യൽ മീഡിയേസില് വൈറലാകാനുള്ള കാരണങ്ങള് ഇതൊക്കെതന്നെയാണ് എന്താണ് ലൈക്സ് കിട്ടാം സബ്സ്ക്രൈബ്സ് കിട്ടും കുറച്ച് ഫോളോസ് കിട്ടും അപ്പം ഇതുകൊണ്ട് എന്താണം അവറ് അവര് കുറച്ച് ഫെയിമസ് ആകും പിന്നേ എന്താണ് അവര് ഫെയിമസ്സാവുന്നത് കൊണ്ട് മറ്റുള്ളവർക്കും അതിനു കുറെ എനർജീക്കെ എനർജെറ്റിക്കായിട്ടുള്ള കാര്യങ്ങള് കിട്ടും അച്ചിപ്പം അറിഞ്ഞൂടാത്ത ആളാണെങ്കിൽ തന്നെ അത് കണ്ട് അവർക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് അവര് ഡാൻസ് പ്രക്ടീസ് ചെയ്യണമെന്ന് അവരുടെ മനസ്സിലവർക്ക് ഓട്ടോമേറ്റിക്കായിട്ട് തന്നെ തോന്നാനുള്ള ചാൻസ് ഉണ്ട് അവരത് പ്രാക്ടീസ് ചെയ്യും അപ്പം ആ ആ ഒരു വിഡിയോസ്സവര് എത്രവട്ടം കാണുന്നോ അത്രയും വട്ടം അവർക്ക് അതിൻ്റെ വ്യൂയേസ് കൂടിക്കോണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഇതിന് ഒരുപാട് ഹെൽപ് ചെയ്യും അതൊക്കെ അങ്ങനത്തെ റീസൺ തന്നെയാണ് വൈറലാക്കാനുള്ള കാരണങ്ങള്